സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ പണ്ടത്തെക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടുണ്ട് എന്നു വെച്ചാൽ ഇപ്പോൾ കമ്പൂട്ടറുകളിൽ നമുക്ക് പഠിക്കാൻ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഓൺലൈൻ ക്ലാസ്സ് നമ്മള് അത് പണ്ട് നോട്ടൊന്നും എഴുതി ഇല്ലെങ്കിലും ടീച്ചർമാര് അടിക്കുകയും ചെയ്യുവായിരുന്നു ഇപ്പോൾ നോട്ട് എഴുതിയില്ലെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകളിൽ മെസ്സെ മെസ്സേജ് വരികയും പിന്നെ കൂട്ടുകാരും ഒക്കെയായിട്ട് കെ എന്തുവാ മോ മൊബൈൽ ഫോൺ വഴി ഓൺലൈൻ വഴി ഇങ്ങനെ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോട്ടുകള് എഴുതാനും സദി സാധിക്കുകയാണ് ചെയ്യുന്നത് പണ്ടൊക്കെ എന്നു വെച്ചാൽ ഫുൾ ശോകം ആയിരുന്നു അവരുടെ കാലത്ത് ഇങ്ങനെ നെറ്റില്ല അങ്ങനത്തെ കുറച്ച് പ്രശ് പ്രശ്നങ്ങള് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ കാലം വന്നപ്പോൾ കുറച്ചു സാങ്കേതിക വിദ്യ കൂടുത കു കൂടുതലും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യം ഒക്കെ അങ്ങനെ കുറെ അനു പിന്നെ അങ്ങനത്തെ കുറച്ച് ഒക്കെ അങ്ങനെ കൂടാനും ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പം ഓൺലൈൻ ഇങ്ങനെ വന്നത് കൊണ്ട് ഇപ്പം സാങ്കേതിക വിദ്യ കുറച്ചും കൂടി പണ്ടത്തെ കാട്ടി അധികമായിട്ടുണ്ട് കുറച്ചും കൂടി അധികം ആയി എന്നു വെച്ചാൽ കുറച്ചും കൂടി അധികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അതു കൊണ്ടാണ് സ സാങ്കേതിക വിദ്യകൾ കുറച്ചും കൂടി അധികമായിട്ടുണ്ട് എന്നു വെച്ചാൽ കുറച്ചും കൂടി മുന്നേറിയിട്ടുണ്ട് നെ എന്താ ഇനി മൊബൈലായാലും കംപ്യൂട്ടറുകളായാലും പിന്നെ സ്കൂളിലെ പഠിത്തം ആയാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ